ഞാനേ ഒരു കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എൻ്റെ പേര് തോമസ് എന്നാണ് ഓഗസ്റ്റ് പത്താം തീയ്യതി കോട്ടയം വരെ പോകാനാണ് ഞങ്ങളൊരു ആറ് പേരുണ്ട് രാവിലെ അഞ്ചു മണിക്ക് മായത്ത് നിന്ന് പുറപ്പെടണം അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് മായത്ത് സെൻ മേരീസ് യു പി സ്കൂളിന് സമീപത്തായിട്ടാണ് സ്കൂള് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പം ഇടത് വശത്തിരിക്കുന്ന ആദ്യത്തെ വീടാണ് വെള്ള പെയിൻറ് അടിച്ച ഒരു വീടാണ് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയ്യതി രാവിലെ അഞ്ച് മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം അതിന് കൃത്യ സമയത്ത് തന്നെ എത്തുമല്ലോ